നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ ത്തേക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒഴിവ് കിട്ടുന്ന സാ സമയങ്ങൾ അതായത് അവന്മാർക്കും ഇതിൽ നിന്നെല്ലാം ഒന്ന് ഒഴിവായി നിൽക്കുന്ന സമയങ്ങളിലാണ് നമ്മളെല്ലാവരും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും എന്നായിരുന്ന് കൃത്യമായിട്ട് അതിനൊരു ഷെഡ്യൂൾ ഉണ്ട് അത് എവിടെ തുടങ്ങണം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്ര മണിക്ക് നമുക്കെത്തണം അവടെ നിന്ന് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എത്ര എത്ര മണിക്ക് പോകണം തിരിച്ച് വീട്ടിൽ വരുന്നതിനെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള സമയം ഉണ്ട് ആ സമയത്ത് നമ്മൾ ഇറങ്ങിയാൽ മാത്രമുള്ളു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ടൈം ടൈം ഷെഡ്യൂൾ കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റേയ്ൻ ചെയ്ത് കറക്ട് സമയത്ത് നമുക്ക് തിരിച്ച് വീട്ടിൽ വരാനും പറ്റത്തുള്ളൂ പിന്നെ പോയെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് സമയം വരുന്നതെന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകൾ അത് അതായത് നമ്മൾ പോയിട്ട് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ മഴയായിരിക്കാം മഴയായിരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികായിട്ടും നമുക്ക് ബൈക്കിനാണ് പോകുന്നതെങ്കിൽ മഴയായതു കൊണ്ട് നമുക്ക് ഓടിക്കേണ്ട ബുദ്ധിമുട്ടുകൾ അതായത് ഇത്ര ഇവിടുന്ന് ഒരു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ പോകാനായിട്ട് ഇത്ര സമയം വേണം പക്ഷെ മഴ ആയ ആയതു കൊണ്ട് ചിലപ്പോൾ അത് ലേറ്റ് ആകും സമയം എടുക്കും ചിലപ്പോൾ ഒരു മണിക്കൂർ അര മണിക്കൂർ ചിലപ്പം സമയം എടുക്കും ആ സമയം നമ്മൾ എന്നായിരുന്നു ആ ഒരു പ്രതികൂല കാലാവസ്ഥ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്യാറെടുക്കുന്നതിന് വളരെ വലിയ അ ഇതായിട്ടുള്ള കാര്യമൊന്നുമില്ല പിന്നെ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി വണ്ടി ഓടിക്കണം അല്ലെ ഒരാൾ മാത്രം വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് കാര്യമില്ല മാറി മാറി വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു എനർജിയും പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ആകും രണ്ട് പേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ആകും പിന്നെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യാറ് പിന്നെ നമ്മൾ ട്രിപ്പിന് പോകാറുള്ളത് അങ്ങനെയാണ്